മലപ്പുറം ജില്ലയുടെ തനതായ ചില പ്രാദേശിക കലാ രൂപങ്ങളാണ് കരകൗശല വസ്തുക്കളുമാണ് മണ് പാത്രനിര്മ്മാണവും പിന്നെ ദഫ്മുട്ടും തുടങ്ങിയവയൊക്കെ ദഫ്മുട്ടൊക്കെ ഇപ്പം നമ്മുടെ നാടുകളിൽ അങ്ങനെ കണ്ടുവരവില്ല പണ്ടുകാലങ്ങളിലെല്ലാം മുസ്ലിംസ് പാരമ്പര്യത്തില് ധാരാളമായി കണ്ടുവരുന്ന ഒരു കളിയായിരുന്നു ദഫ്മുട്ട് അതുപോലെ തന്നെയാണ് മണ്പാത്രനിര്മ്മാണവും കുടില് ഒരു കുടില് വ്യവസായം കൂടി ആയിരുന്നു ഇത് പിന്നെ കരകൗശല വസ്തുക്കളുടെ നിര്മ്മാണമൊക്കെ ഇപ്പോള് നിലച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെയും പലര്ക്കും അത് നിര്മ്മിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നെ വലിയ കാര്യമായ ചെലവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പിന്നെ തിരൂരും ഏറനാട് താലൂക്കും വിഭജിച്ചു തിരൂരങ്ങാടി ഉണ്ടാക്കിയതൊക്കെ മലപ്പുറത്തിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇതിനെ മെച്ചപ്പെട്ട സാഹചര്യത്തിനിടയായി പിന്നെ അത് മലപ്പുറത്തിന്റെ ചരിത്രത്തെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നവയാണ് അതുപോലെ തന്നെ ദഫ്മുട്ടും മണ്പാത്രനിര്മ്മാണമൊക്കെ ഇതുപോലെ തന്നെയാണ്